പത്രത്തിലും റേഡിയോയിലും വീട്ടമ്മമാർക്കായി പ്രത്യേക വിഭാഗം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമേ എന്തെങ്കിലും പരിപാടികളോ മാസികകളോ കോളങ്ങളോ ഉണ്ടോ പത്രത്തിലും റേഡിയോയിലും വീട്ടമ്മമാർക്കായി പ്രത്യേകം കോളങ്ങൾ ഉള്ളത് നല്ലതാണ് പാചക പംക്തി തുടങ്ങിയ എന്നു വച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവർക്ക് പ്രാഗൽഭിയം തെളിയിക്കാൻ തെളിയിക്കാൻ പറ്റുന്ന മേഖകളിൽ അവർക്ക് സ്പേസ് നൽകുന്നത് നന്നായിരിക്കും സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ വളരെ അധികം സമൂഹത്തിലുണ്ട് എന്തെങ്കിലും പരിപാടികൾ വനിതാ മാസികകളൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള പരിപാടികൾ ഉള്ളത് നന്നായിരിക്കും സ്ത്രീകൾക്ക് പോലുള്ള കോളങ്ങൾ കുറവാണ് പൊതുവായിട്ട് സ്ത്രീകൾക്ക് ഒരു മുൻഗണന നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നത് നന്നായിരിക്കും പത്രത്തിലും റേഡിയോയിലും പത്രങ്ങളിൽ വനിതാ ദിനങ്ങളിലും അങ്ങനെയുള്ള പ്രത്യേക ദിനങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കാറുള്ളൂ റേഡിയോയിലെ അവരുടെ വാർത്ത അവതരണ ചാനല് തുടങ്ങിയ അവതരണവും ചാനൽ പ്രക്ഷേപണം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ പ്രത്യേകമായിട്ട് അവർക്ക ഒരു സംവരണം നൽകുന്നത് നന്നായിരിക്കും അവരെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു മുൻഗണന നൽകി അവരെ സ്ത്രീകൾക്ക് ഒരു പരിഗണന നൽകിയാൽ അവർ അവർക്ക് കിട്ടുന്ന മേഖറിയിൽ അവർ നന്നായിട്ട് പ്രവർത്തിക്കാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഒരുമിച്ചിരുന്നു ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് സ്ത്രീകൾക്ക് ഇടയിൽ ഉണ്ട് അത് ചർച്ച ചെയ്യാനായിട്ട് ഉള്ള പൊതു വേദികൾ ഉണ്ടാവുന്നത് നന്നായിരിക്കും വനിതാ മാസികകൾ കൂടുതൽ ഉള്ളത് നല്ലതാണ് പരിപാടികൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അതുപോലെ അധികം നൃത്ത നൃത്യയങ്ങൾ അവർക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അവർക്ക് അങ്ങനെ സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളിലും അവർക്ക് പ്രത്യേക പരിഗണ നൽകുന്നത് നന്നായിരിക്കും